പണ്ടു കാലത്ത് കോഴിക്കോട് ജില്ലയെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഇതൊന്നും അല്ലായിരുന്നു ഇപ്പോളെന്ന് പറയുമ്പോൾ ഫുള്ള് സിറ്റി ഒരു ഭയങ്കരമായിട്ട് ഒരുവലിയൊരു സിറ്റിയായി പിന്നെ എന്ന് പറയുമ്പോൾ കുറെ ഫ്ലാറ്റ് ഒരു പത്ത് ഇരുപത് നിലയുള്ള കാര്യങ്ങൾ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത് പിന്നെ നമ്മളിപ്പം എന്തെങ്കിലുമൊരു സർക്കാർ സ് സ് എന്തെങ്കിലും സർക്കാരിൻറ്റടുത്ത് ചെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപേക്ഷയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട് ഇതാക്കണമെന്നുള്ള അപേക്ഷയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് അവർ പെട്ടെന്നു തന്നെ ഇതാക്കി തരും പണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പം അവരുടെ കാല് പിടിച്ച് കുറേ നാള് നടന്നു എന്നാലും അവരത് ചെയ്തൊന്നും തരില്ലായിരുന്നു ഇപ്പോഴെന്ന് പറയുമ്പം അങ്ങനെ ഒന്നുമില്ലാ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇന്ന കേസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കും അത് ഇതാക്കി തരികയൊക്കെ ചെയ്യും പിന്നെ വയോജന സംഘം അങ്ങനെയെന്ന് പറയുമ്പോൾ ഈ അറുപത് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് ഈ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയില്ലേ പിന്നെ ഇന്ന ദിവസം ഏതെങ്കിലുമൊരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടർ വന്നിട്ട് അവരെ പരിശോധിക്കും പിന്നെ അവരുടെ ബി പി നോക്കും പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഹോസ് ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് അവരുടെ ഓരോ കാര്യങ്ങളും നോക്കുന്നു പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അതിനുള്ള ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ